ഹലോ ആ സോണി ആൻ്റണി അല്ലേ ആ ഗുഡ് മോണിങ് സാർ സാർ ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം സൂവിലെ ഗൈഡായിരുന്നു സംസാരിക്കുന്നത് സാറിന് ഇത് പോലെ നമ്മുടെ സൂ വിസിറ്റ് ചെയ്താൽ കൊള്ളമെന്നുള്ള ഒരു ഇത് കണ്ടു അതു കണ്ടു വിളിക്കുകയാണ് ഇൻട്രസ്റ്റഡ് ആണോ സാർ വിസിറ്റ് ചെയ്യുന്നതിന് ഓക്കെ സാർ എവിടെ നിന്നാാണ് വരുന്നത് കേരളത്തിൽ തന്നെയാണോ അതോ പുറത്തു നിന്നാണോ ഓക്കെ അപ്പം സാർ ഇതിന് മുമ്പ് ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഓ അതേല്ലേ അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് എക്സ്പീര്യൻസ് ആണ് ഇതല്ലേ ഓ സോ വീ വിൽ ട്രൈ റ്റു മേക്ക് ഇറ്റ് ദ ബെസ്റ്റ് ഏൻ്റ് സാറിനെ കുറിച്ച് ഡീറ്റയിൽസ് അയണമെന്നുണ്ട് ആ രജിസ്ട്രഷന് വേണ്ടിയിട്ട് അപ്പം കുറച്ച് ഡീറ്റയിൽസ്സ് പറയാമോ സാർ ഓക്കെ അവർ എത്ര പേര് കാണും സർ ഓക്കെ കുട്ടികൾ ആരെങ്കിലുമുണ്ടോ എത്ര വയസ്സാണ് നാല് വയസ്സ് അപ്പം സാറിൻ്റെ ഏജ് എത്രയാണ് ഓക്കെ അപ്പം നാല് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലെ ആളുകളായിരിക്കും നാളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതല്ലേ സാർ എത്രമണിക്ക് ആയിരിക്കും നാളെ നമ്മുടെ സൂവിൽ എത്തുക നമുക്ക് രാവിലെ ഒരു ടെൻ ഒക്ലോക്ക് മുതൽ വൈകീട്ട് ഒരു അഞ്ച് മണി വരെ സൂ വർക്കിങ്ങ് ആയിരിക്കും അതിന് ഇടയ്ക്ക് കുറച്ച് ബ്രേയ്ക്ക് ഉണ്ടാകും സാറിൻ്റെ ടൈം കൺവീനിയൻ്റ് ടൈം പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഷെഡ്യൂള് ചെയ്യാം ഓക്കെ പത്ത് മണിക്ക് അപ്പം ഞാൻ ഞാനും ഫ്രീ ആണ് സാറ് അപ്പം നമുക്ക് കാണാം നാളെ അപ്പം സാറിൻ്റെ കുട്ടികൾകൊക്കെ ആനിമൽസിനൊക്കെ ഇൻട്രറ്റുള്ള കൂട്ടത്തിൽ അല്ലേ സാർ ഓക്കെ അപ്പം സാറിന് ഓ അതെയോ അപ്പം നമ്മുടെ ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഈയിടെ കൊണ്ടു വന്ന ഒരു ടൈഗറൊക്കെയുണ്ട് അവിടെ പേര് സൂമ്പ എന്നാണ് അവനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ടൈഗേഴ്സിനെയൊക്കെ ഇഷ്ടമല്ലേ കുട്ടിക്ക് അതേ സാർ ആ ഗ്രീൻ അനക്കോണ്ട പോലെ പിന്നെ റെഡ്ഡ് അനക്കോണ്ട ഉണ്ട് അങ്ങനെ വളരെ എക്സോട്ടിക്ക് ആയിട്ടുള്ള കുറേ അനിമൽസ്സ് നമ്മുടെ സൂവിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ സർ നമ്മൾ വൈൽഡ് ലൈഫ് സാഞ്ചറിയിൽ ഇത് വരെ ഫുഡ്ഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല സർ അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നമുക്ക് സൂവായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയ്ൽസ് ആണ് ഗേയ്ഡ് എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ അതിൽ കുറേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സോട്ടിക്ക് ആയിട്ടുള്ള ആനിമൽസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും പിന്നെ ഇത് മാത്രമല്ല സാർ നമ്മൾ സൂവിൽ ഫീഡിങ് ദ അനിമൽസ് എന്ന് പറഞ്ഞ ഒരു ആനിമൽ സെഗ്മൻ്റ് കൂടെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ജിറാഫിനും മാനിനുമൊക്കെ കുറച്ച് ഫുഡ്ഡ് അവർക്ക് ഇൻട്രസ്റ്റെഡ് ആണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഫുഡ്ഡ് കൊടുപ്പിക്കുന്ന രീതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ പിന്നെ അതിൻ്റെ ഒരു ഫൈവ് ഹണ്ട്രഡ് രൂപയാണ് റുപ്പീസ് ആണ് ഒരു അഡൽറ്റിന് വരിക കുട്ടികൾക്ക് ആണെങ്കിൽ ഒരു ഹൻഡ്രഡ് റുപീസ്സ് അങ്ങനെയാണ് നമ്മൾ ഇപ്പം ചെയ്യിക്കുന്നത് ഒക്കെ സാർ അപ്പം നമുക്ക് നാളെ മീറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് സാർ